ആഹ് നമ്മൾ ചെറുപ്പം മുതലേ അടുപ്പിലാണ് എല്ലാം പാചകം ചെയ്യൽ അപ്പം എല്ലാം ചെയ്യുന്ന ഇപ്പോൾ ഈ കുക്കറും ഇതെല്ലം വന്നിട്ടുള്ളത് ഇപ്പോൾ പിന്നെ ഗ്യാസും ഇതെല്ലം വന്നിട്ട് ഇപ്പോഴാണ് ഇതെല്ലാം ചെറുപ്പത്തിലേ അത് അതിൽ ചെയ്തിട്ട് നമ്മൾക്ക് ശീലമാണ് ചെറുതുണ്ടാകുമ്പോഴെ പിന്നെ ഇത് ഇപ്പോഴും നമ്മളെ അടുപ്പിൽ തന്നെ ചോറെല്ലാം അടുപ്പിൽ തന്നെ ആക്കാറ് പിന്നെ പാത്രം വടിക്കാനും ഇതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമ്മളെ അടുപ്പിൽ തന്നെ പാചകം ചെയ്യും പിന്നെ രാവിലെ ഇങ്ങനെ മരുമകളെല്ലാം ജോലിയ്ക്ക് പോകുന്നത് കാരണം രാവിലത്തെ ഭക്ഷണം ഗ്യാസിലാണ് അപ്പം ഗ്യാസിലാകുമ്പം പെട്ടെന്ന് കയ്യിൽ നിന്ന് എല്ലാം ചെയ്യാൻ പിന്നെ എല്ലാം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ യന്ത്രങ്ങളല്ലേ നമ്മളെല്ലാം പണ്ടേ പിന്നെ എല്ലാത്തിലും അടുപ്പിൽ ആണ് എല്ലാം ഭക്ഷണം പാകം ചെയ്യൽ പിന്നെ എല്ലാം മീൻ കറി വയ്ക്കും ചോറ് വയ്ക്കും ഇത് പാത്രങ്ങളക്കെ കഴുകാൻ കുറച്ച് കഷ്ടമാകുന്നുണ്ട് എന്നെങ്കിലും നമ്മൾ അടുപ്പിൽ തന്നെ ചോറ് വയ്ക്കും ഇപ്പോഴും ഞാൻ അടുപ്പിൽ വച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നത് പിന്നെ ചോറെല്ലാം അതിൽ വയ്ക്കും ചോറ് വയ്ക്കും കറികൾ വയ്ക്കും വേറെ എന്തെങ്കിലും ചൂടു വെള്ളം ഉണ്ടാക്കും കുളിക്കാനുള്ള ചൂട് വെള്ളമുണ്ടാക്കും പിന്നെ ഇത് ചോറെല്ലാം അതിൽ വച്ചിട്ട് കഴിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം ഗ്യാസിൽ ഗ്യാസിൽ വച്ചെങ്കിൽ അത് തീരെ ഇതാകുന്നില്ല നല്ല വേവ് വ്യത്യാസമുണ്ട് നമ്മൾക്ക് ചോറെല്ലാം നല്ലോണം വെന്ത് കിട്ടണം വെന്ത് കിട്ടണമെന്നു പറഞ്ഞാൽ നല്ല പാചകം ആവണം നമ്മൾക്ക് ചോറെല്ലാം കിട്ടണമെങ്കിൽ അപ്പോൾ ഗ്യാസടുപ്പിലാകുമ്പോൾ അതു കിട്ടില്ല പിന്നെ അത് വച്ചിട്ട് പിന്നെ ഇങ്ങനെ തെർമ്മോക്കോളിലോ അങ്ങനെ എന്തെങ്കിലും വച്ചിട്ടെങ്കിലും നമ്മൾക്ക് അടുപ്പിൽ വച്ചിട്ട് വേവിച്ചപോലെ കിട്ടുന്നില്ല അടുപ്പിൽ വച്ചിട്ടാകുമ്പം അതൊരു ഇത് ടേസ്റ്റാണ് അടുപ്പിൽ വച്ചിട്ട് നമ്മൾക്ക് ചോറൊക്കെ കഴിക്കാൻ അടുപ്പിലെ ഏത് ഇതായെങ്കിലും മൺ ചട്ടിയിൽ അടുപ്പിൽ വച്ചെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് അങ്ങനെയാണ് ഞാൻ ശീലിച്ചത് അതുകൊണ്ട് ഞാൻ അങ്ങനെയേ വയ്ക്കും ഇപ്പോഴായെങ്കിലും ഞാൻ അങ്ങനെതന്നെ അടുപ്പിലാണ് പിന്നെ ഗ്യാസും അടുപ്പുമായിട്ടുള്ള വ്യത്യാസം ഗ്യാസിലാകുമ്പം പെട്ടന്ന് ആവുന്നുണ്ട് അടപ്പിലാവുമ്പം രാവിലെ ആയെങ്കിൽ ഉച്ച വരെ പിന്നെ അതു പാത്രം വടിച്ചിട്ടും ഇതാക്കിയിട്ടും എല്ലാം ആവുമ്പോ കുറേ വൈകുന്നുണ്ട് വൈകിയാലും നമ്മൾക്ക് അടുപ്പിൽ തന്നെയാണ് ഇഷ്ടം തീ കത്തിക്കാനെല്ലാം കുറച്ച് കഷ്ടമുണ്ട് പിന്നെ വിറകൊന്നും കിട്ടാനില്ല എന്നാലും സംഘടിപ്പിച്ചിട്ട് വിറക് സംഘടിപ്പിച്ചിട്ട് നമ്മൾ പാകം ചെയ്യും ചേരി ചിരട്ട നമ്മൾ തേങ്ങ തേങ്ങയൊക്കെ ഇതാക്കുമല്ലോ തെങ്ങേരെ ചേരി ചിരട്ട പിന്നെ അങ്ങനെയല്ലെ സാധനം ഓല തെങ്ങിലെല്ലാം നമ്മൾക്ക് കത്തിക്കാനുള്ള ഇതെല്ലാം കിട്ടുന്നുണ്ട് അതിൽതന്നെ അധികം പാചകം ചെയ്യും പിന്നെ

ഇതാണ് പിന്നെ എന്താണെന്നു വച്ചാൽ കരിയും പുകയും കുറച്ച് ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നാലും സാരമില്ല പിന്നെ എല്ലാം ഇല്ല ഞാൻ അടുപ്പിൽ തന്നെ ഗ്യാസിൽ ഗ്യാസിലും ഇഷ്ടം തന്നെ ചെയ്യാൻ വ്യത്യാസം എന്നു പറഞ്ഞെങ്കിൽ ഗ്യാസിൽ പെട്ടെന്നാകുന്നുണ്ട് പിന്നെ അടുപ്പിൽ കുറച്ച് ഉച്ച വരെ കാക്കേണ്ടി വരുന്നുണ്ട് ജോലിക്കെല്ലാം പോകുന്നവർക്ക് ഗ്യാസിലാണ് ജോലിക്കെല്ലാം പോകുന്നവർക്ക് ഗ്യാസിലാണ് നല്ലത് പിന്നെ ഇൻ്റക്ഷൻ കുക്കർ നമ്മളെ വീട്ടിലില്ല എന്നാലും ചെയ്തിട്ടറിയാം ചെയ്യലുണ്ട് വിറകിലെല്ലാം പോയെങ്കിൽ കാണലുണ്ട് ചെയ്യലുണ്ട് എന്നാലും എനിക്ക് അടുപ്പാണിഷ്ടം അടുപ്പിൽ തന്നെ പാചകം ചെയ്യും

എന്ത് കുറച്ച് ആ ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ട് എന്നാലെങ്കിലും നമ്മൾ അടുപ്പിൽ ചെയ്യും പിന്ന എന്താണെന്നു വച്ചാൽ